ഞാൻ ചില ദിനചര്യകൾ ജീവിതത്തിൽ പിന്തുടരുന്നുണ്ട് എഴുത്ത് ശീലങ്ങളും എൻ്റെ ജീവിതത്തിൽ ഞാൻ മുന്നോട്ട് കൊണ്ട് പോകുന്നുണ്ട് എഴുത്ത് എന്ന് പറയുന്നത് എനിക്കേറ്റവും ഇഷ്ടപെട്ട ഒരു കാര്യങ്ങളിൽ ഒന്നാണ് ശരിക്ക് പറഞ്ഞാൽ എൻ്റെ ശീലങ്ങളിൽ ഒന്നായി എഴുത്ത് മാറിയിരിക്കുന്നു ഞാൻ ദിവസവും ഒരു വരിയെങ്കിലും ഒരു വരി ഞാൻ എഴുതി വയ്ക്കും അതിന് വേണ്ടി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന പ്ലാറ്റ് ഫോമെന്ന് പറയുന്നത് എൻ്റെ വാട്സ്പ്പാണ് വാട്സ്പ്പിൽ ഞാൻ മാത്രമുള്ളൊരു ഗ്രൂപ്പ് ക്രീയേറ്റ് ചെയ്തിട്ട് എനിക്ക് ദിവസം കിട്ടുന്ന ഐഡിയാസിലേക്ക് ഞാൻ അതിൽ എഴുതി വയ്ക്കും ചില സമയത്ത് ഞാൻ വിവരിച്ച് അതിലെഴുതി വയ്ക്കും ചില സമയത്ത് അതിൻറ്റെ ഓൺലൈൻ അല്ലെങ്കിൽ ഹെഡ് ലൈൻ മാത്രം എഴുതി വ യ്ക്കും അതുപോലെയുള്ള ചില എഴുത്ത് ശീലങ്ങൾ എനിക്ക് ഉണ്ട് ഞാനെന്നും രാവിലെ അഞ്ചരയ്ക്ക് എഴുന്നേൽക്കും എന്നിട്ട് എൻ്റെ വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രാർഥനകളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വായനിയിലേക്കാണ് കടക്കുന്നത് ഒരുപാട് ഞാൻ വായിക്കും വായന എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളായത് കൊണ്ട് ഞാൻ ഒരുപാട് വായനയിൽ ഏർപ്പെടാറുണ്ട് ഞാൻ ദിവസവും പ്രാർഥനകളൊക്കെ കഴിഞ്ഞ് ജീവിതത്തിലേക്ക് ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഞാൻ ആദ്യം വായിച്ച് കൊണ്ടാണ് തുടങ്ങുന്നത് വായനയെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളായത് കൊണ്ട് ഞാൻ വായിച്ച് കൊണ്ട് തുടങ്ങും കുറച്ചെങ്കിൽ കുറച്ച് പറ്റുമെങ്കിൽ അതിൽ കൂടുതൽ ഞാൻ വായിക്കും വായിച്ചില്ലെങ്കിൽ എനിക്ക് ഒരു മടുപ്പ് പോലെ തോന്നും അതുകൊണ്ട് ഞാൻ കുറച്ചെങ്കിലും കുറച്ച് വായിക്കാറുണ്ട് അങ്ങനെയാണ് എൻ്റെ ഒരു ദിവസം തുടങ്ങുന്നത് എഴുത്തിൻ്റെ ശക്തി സ്രോതസ്സ് എന്ന് പറയുന്നത് വായനയാണ് ആത്മാർഥമായി എഴുത്തിലൂടെ എഴുത്തിലേക്ക് കടന്ന് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് വായനയില്ലാതെ വായനയിലൂടെയല്ലാതെ അത് പറ്റില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ എഴുതാനേറ്റവും കൂടുതൽ ഇഷ്ട്ടമുള്ളത് കൊണ്ട് ഞാൻ വായനെയും ഇഷ്ടപ്പെടുന്നു പിന്നീട് വായനയെയും എഴുത്തിനേയും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരാളായിട്ട് ഞാൻ മാറി ഞാൻ വായിക്കുന്നത് ഒരു വിഷയ സംബന്ധമായിട്ടുള്ള പുസ്തകം മാത്രമല്ല ഒരുപാട് വിഷയ സംബന്ധമായിട്ടുള്ള പുസ്തകങ്ങളെ ഞാൻ വായിക്കാറുണ്ട് വായന ഒരുപാട് മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ കൊണ്ട് വന്നിട്ടുണ്ട് ഒരുപാട് അറിവുകൾ വായനയിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ് വായിച്ചാൽ ഒരുപാട് അറിവുകൾ നമുക്ക് ലഭിക്കും പണ്ട് ഒരു കവി പറഞ്ഞതുപോലെ വായിച്ചാലും വളരും വായിച്ചില്ലേലും വളരും വായിച്ചാൽ വിളയും വായിച്ചില്ലേൽ വളയും എന്നതാണ് ആ ഒരു വാചകത്തോടെ ഞാൻ നൂറ് ശതമാനം യോജിക്കുന്നുണ്ട് ഞാൻ അതിൽ വിശ്വസിക്കുന്നുമുണ്ട് ഞാൻ എഴുത്ത് എഴുത്തിനെ ഒരു ചിട്ടയിൽ മുൻപോട്ട് കൊണ്ട് പോവാൻ ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ ഞാൻ എഴുതാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് ചിലപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലേക്ക് എഴുത്ത് വരണമെന്നില്ല ജീവിതത്തിലെ ദിവസത്തിലെ ഏതെങ്കിലൊരു സമയത്ത് ഒരു ഐഡിയ എൻ്റെ മനസ്സിലേക്ക് വരും ആശയം എൻ്റെ മനസ്സിലേക്ക് വരും ചിലത് ഞാനത് മനസ്സിൽ തന്നെ കൊണ്ട് നടക്കും അല്ലെങ്കിൽ വാട്സ്പ്പിൽ ഞാൻ മാത്രമുള്ള ഒരു ഗ്രൂപ്പെടുത്ത് മറന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിനെ അതിലേക്ക് എഴുതി വയ്ക്കും എൻ്റെ എഴുത്താകുന്ന ആശയത്തിനെ ആശയമാകുന്ന എഴുത്തിനെ ഞാൻ അതിലേക്ക് എഴുതി വയ്ക്കും ചിലത് ഞാൻ മനസ്സിൽ തന്നെ കൊണ്ട് നടക്കും

പേപ്പറിലേക്ക് എഴുത്തിനെ എഴുതി വയ്ക്കൽ കുറവാണ് അധികം മൊബൈൽ തന്നെയാണ് എഴുതി വയ്ക്കാറുള്ളത് ചുരുക്കി പറഞ്ഞാൽ വാട്സ്പ്പിൽ എഴുതി വയ്ക്കുകയാണ് പതിവ് ഞാൻ മുൻപൊക്കെ ഞാൻ എഴുതിയ എഴുത്തിനൊക്കെ അല്ലെങ്കിൽ ഞാൻ ഡയറക്റ്റായിട്ട് പേപ്പറിലേക്ക് എഴുതിയിരുന്നു കുറച്ച് നോവൽ ഞാൻ എഴുതി വച്ചത് എൻ്റെ പക്കലുണ്ട് എൻ്റെ വീട്ടിലുണ്ട് ഞാൻ കുറച്ച് കഥകളൊക്കെ അതിൽ എഴുതി വച്ചിരുന്നു ഒന്ന് ഞാൻ കുറച്ച് എഴുത്തെന്ന് പറയുന്നത് എനിക്ക് അത്രക്കും ഇഷ്ടപ്പെട്ട ഒരു കാര്യമായത് കൊണ്ട് ഒരു പുസ്തകം എഴുതി പബ്ലിഷ് ചെയ്യാൻ ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നു അതിന് വേണ്ടി ഞാൻ ദിവസവും പ്രയത്നിക്കുന്നുണ്ട് എന്നും രാവിലെ എഴുന്നേറ്റ് വായിച്ചതിന് ശേഷം ഞാൻ നേരെ കടക്കുന്നത് എഴുത്തിലേക്കാണ് ഞാൻ എഴുതാൻ വേണ്ടി കുറച്ച് സമയം ഇരിക്കുന്നുണ്ടെങ്കിൽ ഇതുവരെയുള്ള എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇരുന്നിട്ടുണ്ടെങ്കിൽ അതി രാവിലെ എൻ്റെ പ്രാർഥനകളൊക്കെ കഴിഞ്ഞ് പുസ്തകങ്ങളൊക്കെ വായിച്ച് നേരെ എഴുതാൻ വേണ്ടി ഇരിക്കുന്നതാണ് അത് ഞാൻ ചിലപ്പോൾ മുൻപ് അതിന് മുൻപത്തെ ദിവസം അല്ലെങ്കിൽ അതിന് മുൻപത്തെ ദിവസങ്ങൾ എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്ന ആശയങ്ങൾ ഞാൻ എഴുത്തിലേക്ക് കൊണ്ടു വരും എന്നിട്ട് ഞാനത് സൂക്ഷിച്ച് വയ്ക്കും അതുപോലെ ഉള്ള ഒരു ശീലങ്ങൾ കൊണ്ട് ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന ഒരാളാണ് ഞാൻ മറ്റു കാര്യം പറയുകയാണെങ്കിൽ ഞാൻ എഴുതിയ എഴുത്തുകളെ കൂടുതൽ മനോഹരമാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ ഒരു കഥ അല്ലെങ്കിൽ കവിത അല്ലെങ്കിൽ എന്തെങ്കിലും ചെറുകഥ ഞാൻ എഴുതി വച്ചാൽ ഞാനതിനെ വീണ്ടും വീണ്ടും വായിക്കും അതിന് എന്തെങ്കിലും മാറ്റം വരുത്തണോ എന്നാഗ്രഹിക്കും മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിൽ ആ എഴുതിയതിനെ മറ്റൊരു പേപ്പറിലേക്ക് വീണ്ടും മനോഹരമായിട്ട് എഴുതും അത് ഞാൻ ഒന്നും കൂടി വായിച്ച് നോക്കും അന്നേ ദിവസം വായിക്കും അല്ലെങ്കിൽ അതു കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിൽ വായിക്കും എനിക്കതിഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാനത് വീണ്ടും വീണ്ടും എഴുതും എൻ്റെ മനസ്സിലെഴുതിയ തൃപ്തിയാകുന്നത് എപ്പൊഴാണോ എഴുത്ത് മനോഹരമായി എന്ന് തോന്നുന്നത് എപ്പൊഴാണോ അതു വരെയും ഞാനെഴുതും ഞാൻ അതിനെ വീണ്ടും വീണ്ടും എഴുതിക്കൊണ്ടേ ഇരിക്കും ആ ഒരു ശീലം കൊണ്ട് നടക്കുന്ന ഒരാളും കൂടെ ആണ് ഞാൻ ഞാൻ എഴുത്തിലേക്ക് എത്തിപ്പെട്ടത് എങ്ങനെ എന്ന് വച്ചാൽ ചില ആൾക്കാരെ വായനയിലൂടെ എഴുത്തിലേക്ക് എത്തിപ്പെടും പക്ഷേ ഞാൻ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഡയറക്റ്റായിട്ട് എഴുത്തിലേക്ക് എത്തിപ്പെട്ട ഒരാളാണ് ഞാൻ എൻ്റെ ഒരനുഭവം പറയാം ഞാൻ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഒരു ഫ്രീ പിരീഡ് ഉണ്ടായിരുന്നു സർ വന്നില്ല ക്ലാസ്സിലേക്ക് അപ്പോൾ മറ്റൊരു സാർ വന്നു കൊണ്ട് പറഞ്ഞു നിങ്ങളാരും വെറുതെ ഇരിക്കണ്ട എന്തെങ്കിലുമൊന്ന് ചെയ്യണമെന്ന് എന്നിട്ട് സാർ ഒരു കാര്യം ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ ഒരു കഥ സ്വന്തമുണ്ടാക്കി എഴുതണം അതിൽ നല്ല കഥയ്ക്ക് എൻ്റെ വക സമ്മാനം ഉണ്ടായിരിക്കുന്നതാണെന്ന് അങ്ങനെ പറഞ്ഞ് സർ പോയി എല്ലാവരും ബുക്കെടുത്ത് പേനയെടുത്ത് എഴുതാൻ തുടങ്ങി എല്ലാവരും എഴുതാൻ തുടങ്ങി അങ്ങനെ ഞാനും എഴുതാൻ തുടങ്ങി അങ്ങനെ എഴുതി ഞാൻ എഴുതാൻ തുടങ്ങി അവസാനം എല്ലാവരും എഴുതി കഴിയുമ്പോൾ സാറ് വന്നു സാറ് വന്നിട്ട് ചോദിച്ചു നിങ്ങളെഴുതിയ കഥ ആർക്കെങ്കിലും ധൈര്യമായിട്ട് മുമ്പിൽ ചെന്ന് കൊണ്ട് വായിക്കാൻ ധൈര്യമുള്ളത് ആരാണോ അവർ വന്ന് വായിക്കണം കുറച്ച് കുട്ടികൾ അവിടെ പോയി വായിച്ചു അവസാനമാണ് ഞാൻ പോയി വായിച്ചത് അങ്ങനെ എൻ്റെ ആ കഥ കേട്ട ശേഷം എൻ്റെ കഥയെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു സാറിനും ഇഷ്ടപ്പെട്ടു അവസാനം സാർ എല്ലാ കുട്ടികളോടുമായിട്ട് ഒരു കാര്യം ചോദിച്ചു നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപെട്ട കഥ ആരുടേതാണെന്ന് അപ്പോൾ എല്ലാവരും എന്നെ ചൂണ്ടി കാണിച്ച് പറഞ്ഞു ഇവൻ്റെ കഥയാണ് എനിക്ക് നല്ല ഏറ്റവും കൂടുതൽ ഇഷ്ടപെട്ടതെന്ന് അങ്ങനെ ആ കഥക്കുള്ള ഒന്നാം സമ്മാനം എനിക്ക് കിട്ടുകയാണ് ചെയ്തത് അപ്പോൾ ഞാൻ വായന ശീലം ദിവസവും കൊണ്ട് നടക്കുന്ന ആളല്ലായിരുന്നു ചെറുപ്രായമായത് കൊണ്ട് എപ്പോഴെങ്കിലും ഒരിക്കൽ വയിക്കുന്ന ഒരാളായിരുന്നു ഞാൻ എപ്പഴെങ്കിലും വായിക്കും ഇഷ്ടപ്പെട്ടു കൊണ്ട് വായിക്കുന്ന ഒരാളാണ് ഞാൻ അന്നു മുതലേ എനിക്ക് മലയാളം ലാംഗ്വേജിനേയും എഴുത്തിനെയും ഇഷ്ടമായിരുന്നു എനിക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇംഗ്ലീഷ് ഭാഷ മുമ്പ് വളരെ കഷ്ട്ടമായിരുന്നു പിന്നീട് ഒരുപാട് കുറച്ചെങ്കിലും ഇംഗ്ലീഷിനെ ഞാൻ പഠിച്ചെടുത്തത് ഇപ്പോഴും ചില ബുദ്ധിമുട്ടുകൾ ഇംഗ്ലീഷിൽ അനുഭവപ്പെടുന്നുണ്ടെങ്കിലും മുമ്പത്തേക്കാൾ എത്രയോ എളുപ്പം എനിക്ക് ഇംഗ്ലീഷിലുണ്ട് ഞാൻ സി ബി എസ് സിയിൽ പഠിക്കാത്തത് കൊണ്ടാണ് എനിക്ക് ഇംഗ്ലീഷിൽ പരിജ്ഞാനം കുറഞ്ഞത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഞാൻ ഗവൺമെൻറ്റിൽ പഠിച്ചൊരാളാണ് അതുകൊണ്ട് എനിക്ക് മലയാളം നല്ല രീതിയിൽ അറിയാൻ പഠിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട് നേരെ മറിച്ച് സി ബി എസ് സി സ്കൂളിലാണ് അഫ്ലിയേറ്റഡ് സി ബി എസ് സി സ്കൂളുകളിലാണ് ഞാൻ പഠിച്ചതെങ്കിൽ എനിക്ക് ഇംഗ്ലീഷും മലയാളവും നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ അറിയുമായിരുന്നു ഇപ്പോൾ എനിക്ക് മലയാളം നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ട് സി ബി എസ് സി യിൽ പഠിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ എനിക്ക് പറ്റുമായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അപ്പോഴത്തെ സാഹചര്യം കൊണ്ട് എനിക്ക് ഇംഗ്ലീഷിൽ സ്കൂളിൽ പഠിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല അതുകൊണ്ട് എനിക്ക് ഒരു വിഷമവും ഇല്ല ഇംഗ്ലീഷ് കൂടുതൽ അറിയുമായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ എഴുത്ത് ഇംഗ്ലീഷ് ഭാഷയിലേക്കും പോകുമായിരുന്നു ഇംഗ്ലീഷ് കൂടുതൽ പഠിച്ചത് കൊണ്ട് ഞാൻ എഴുത്ത് ഇംഗ്ലീഷിൽ കൊണ്ട് പോയി ഇംഗ്ലീഷിലും കഥകൾ എഴുതാൻ അല്ലങ്കിൽ കവിതകളെഴുതാൻ അല്ലങ്കിൽ മറ്റ് കാര്യങ്ങളുമൊക്കെ എഴുതാൻ ഞാൻ ശ്രമിക്കുമായിരുന്നു ഏതായാലും കുഴപ്പമില്ല മലയാളം എനിക്ക് ഏറ്റവും കൂടുതൽ അറിയപ്പെട്ട ഇഷ്ടപെട്ട ഒരു ഭാഷയാണ് ഇന്ത്യയിലെല്ലാവർക്കും അറിയുന്ന ഭാഷ എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ മലയാളം എന്ന ഭാഷ ഏകദേശം എല്ലാ ഇന്ത്യക്കാർക്കും അറിയാം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഞാൻ ദിവസവും കുറച്ച് കുറച്ച് എഴുതാറുണ്ട് ആ കുറച്ച് കുറച്ച് എഴുതിയതൊക്കെ കൂട്ടിച്ചേർത്ത് ഒരേ വിഷയത്തിലുള്ളതിനെ ഒരു പുസ്തകമാക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് അതിൻ്റെ പരിശ്രമത്തിലാണ് ഞാൻ എന്നെങ്കിലും ഞാൻ വിജയിക്കും അല്ലങ്കിൽ പുസ്തകം പുറത്തെടുക്കും എന്നൊരു ഉറച്ച വിശ്വാസം എനിക്കുണ്ട് അതിന് വേണ്ടി ഞാൻ പ്രയത്നിക്കുകയാണ്